അതെ ആരാണ് സംസാരിക്കുന്നത് ഓക്കെ ആ എന്താണ് വിളിച്ചത് ആ ഇത് എപ്പോഴാണ് ഫങ്ഷൻ്റെ തീയതി ഒന്ന് പറയാമോ ആ എന്തൊക്കെയാണ് വേണ്ടത് ഏതാണ് വേണ്ടത് അത് എത്രയാണ് എത്ര എണ്ണമാണ് വേണ്ടത് അതിനനനുസരിച്ച് നമ്മൾ ശരിയാക്കാം ആ ലഡ്ഡു ആണ് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ലഡു ലഡു തന്നെയാണ് കൊടുക്കുന്നത് ആ ആ ആ ആ ആ നിങ്ങൾ ഒരു ദിവസം ഇങ്ങോട്ട് വരുന്നോ നേരിട്ട് കഴിച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ തീരുമാനിക്കാം

ആ നമ്മൾ കിലോയ്ക്ക് കൊടുക്കുന്ന അത് കുറവാക്കിയിട്ട് തരാം നിങ്ങളിത്രയും എണ്ണം എടുക്കുന്നയല്ലേ കുറവാക്കിയിട്ട് തരാം നിങ്ങൾ ഇവിടെ വരുമോ ഇത് കൊണ്ടു പോവാൻ അല്ല വീട്ടിലെത്തിക്കണോ ലഡു തന്നെ ഒരു രണ്ടു മൂന്ന് തരം വരുന്നുണ്ട് അതിൽ നോർമലായിട്ടുള്ളത് വേണോ കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ഉള്ളത് വേണോ അതെ അതെ ആ ആ ആയിക്കോട്ടെ അപ്പം നിങ്ങൾ ഡേറ്റും ഇതും ഒന്ന് മെസ്സേജ് അയച്ചേ അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം ശരി അപ്പോൾ ഓക്കെ ആ താങ്ക് യു